ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ബാലവേല കുറേയധികം ഒഴിവായിട്ടുണ്ട് ഇപ്പോൾ ആതൊക്കെയാണെങ്കിലും ബാലവേല നമുക്ക് എവിടെ നോക്കിയാലും കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും അവരെ ബലം പ്രയോഗിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതും നമുക്ക് കാണാം എന്നിന്ന് നിയമപരമായി അത് നിരോധിച്ചത് കൊണ്ട് തന്നെ ശിക്ഷാർഹമായത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ആ രീതിയിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എങ്കിൽ പോലും മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ രാജസ്ഥാൻ ആ അങ്ങ് ആ ഒരു രാജ്യങ്ങൾ മറ്റു പല കേരൾ ഇന്ത്യയിലല്ലാതെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ബാലവേല ചെയ്യിക്കുന്നതൊക്കെ വാർത്തയിലായിട്ടൊക്കെ കാണാം എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ബാലവേല പൊതുവെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾ ഒരുപാട് തന്നെ പഠി പഠനത്തിലും ജോലിയിലായിട്ട് ഏർപ്പെ അവരുടേതായ കാര്യങ്ങളിലാണ് അവർ പിടിച്ചു വലിച്ചു ചെയ്യിക്കാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികളെയൊന്നും അതുകൊണ്ടു തന്നെ ബാലവേല ഒരുപാട് മാ ഒരുപാട് ഇപ്പം നി നിന്നിട്ടുണ്ട് അതുപോലെ അതിപ്പം ഇപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ടും പറ്റും അവിടെ നിര നിയമപരമായി സ്ട്രിക്ട് ആയിട്ട് അത് ഒഴിവാ ഒരു ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവ അവിടെയും ഒരു പേടി വരാൻ അവർക്ക് ഇപ്പോൾ നിയമപരമായി എന്തെങ്കിലും ശിക്ഷാർഹം അല്ലെങ്കിൽ നിയമപരമായ നടപടി എടുത്താൽ അത് അവിടെ നിന്നും ബാലവേല എന്ന പ്രശ്നം അവിടെ മൊത്തത്തിലായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ ജോ ജോ ഇപ്പം കുട്ടികളെ തന്നെ ബാലവേലയ്ക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം കോരാനും അതുപോലെ വീട്ടുജോലി നിർബന്ധപൂർവ്വം വീട്ടുജോലി പെൺകുട്ടികളും ഒക്കെ ആണെങ്കിൽ പഠിക്കാൻ വിടാതെ വീട്ടുജോലി എടുപ്പിക്കുക അതൊക്കെ ബാലവേലയിൽ പെടുന്നതാണ് ഇതൊക്കെ നമുക്ക് നിയമപരമായി നിർത്തിക്കാൻ പറ്റും അത് സമൂഹം അല്ലെങ്കിൽ സമൂഹം ഒത്തോരുമിച്ചു സമൂഹം പോലീസും അതുപോലെ സർക്കാരും ഒരു ഒറ്റക്കെട്ടായി നിന്നാൽ ബാലവേല നമുക്ക് തുടച്ചു മാറ്റാനായിട്ടു പറ്റും